എൻ്റെ അടുത്തുള്ള ആരാധനാലയം പച്ചക്കാട് തിരുഹൃദയ ദേവാലയം അത് ആഴ്ചയിൽ ഓരോ ദിവസവും ഞാൻ വിശുദ്ധ കുർബ്ബാനയിൽ പങ്ക് കൊള്ളുകയും അനുസ്ഥ ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ഈ എല്ലാ ആഴ്ചകളിലും ആരാധനയിൽ പങ്കെടുക്കും അടുത്ത ഭവനങ്ങളിൽ പോയി ഈ ഭവനാരാധന നടത്താറുണ്ട് ഇത് ഇത് തിരുഹൃദയ ഈശോയുടെ ഓരോ പ്രാർത്ഥനകളും എനിക്കിഷ്ടമാണ് മധ്യസ്ഥം വഹിക്കാൻ മാതാവിനെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടം കൂടാറുണ്ട് ഒത്തിരിയേറെ ആസ്വദിക്കുന്നത് യേശു ഈശോയോടാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി ആസ്വാദനമാണ് കിട്ടുന്നത് പിന്നെ ആരാധന ഒക്കെ ആയിട്ട് ഈശോയുടെ നാമത്തെ പ്രതി കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പഴും ഒത്തിരി ഒത്തിരി ആസ്വദിക്കാറുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലും ഈശോയെ മുറുകെ പിടിച്ച് കൊണ്ട് മുന്നോട്ട് പോകാറുണ്ട് മറ്റ് കാര്യങ്ങളായാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തന്നെ ഒരു ആവശ്യത്തിന് പോകണം അന്നേരവും ഈശോയോടുള്ള ആ സ്നേഹവും ഈശോയോടുള്ള ആ ആരാധനയുടെ ഒരു എന്താ ആസ്വാദനം വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ നന്മയോടുകൂടി വളരെ വിശുദ്ധിയോടുകൂടി അനുഭവിക്കാറുണ്ട് അത് ഇനിയും തുടർന്നും അതുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുക്കുവാനും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹമുള്ളവർക്ക് അത് ആസ്വദിക്കാനാഗ്രഹമുള്ളവർക്കത് കൊടുക്കാനും ആഗ്രഹിക്കുന്നു പിന്നെ മറ്റുള്ളവരിലേക്ക് ഈശോയെ നിരന്തരം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കില് ആപത്തുകളിൽ അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക യിക്കുകയും അവരെയും ഈശോയിലോടടുപ്പിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൽ ഈശോയോടുള്ള സ്നേഹം അത് മാത്രമാണ് ഇന്ന് നിലനിർത്തുന്നത് എല്ലാ തരത്തിലും സഭയോടുള്ള സഭയോടുള്ള ആരാധന വളരെ തീക്ഷണമായിതന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അത് മറ്റുള്ളവരിലേക്കും അത് പകർന്ന് കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പലപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നന്മകളാൽ തന്നെ അവിടത്തെ അനുഗ്രഹം ഒത്തിരി സമർത്ഥമായി ചൊരിയട്ടെ എന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടുകൂടിയാണ് ആരാധനാലയത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവരോടുള്ള സ്നേഹം അത് പങ്ക് വയ്ക്കുകയും അതില് ഒരു ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അത് അനുഭവിക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അഥവാ രണ്ട് പ്രാവശ്യം എത്താൻ സാധിച്ചില്ല എങ്കിൽ ഒരുപ്രാവശ്യമെങ്കിലും ആരാധനക്കായിട്ട് പോകുന്നുണ്ട് അത് നന്മയായിട്ടും മറ്റുള്ളവരിലും മറ്റുള്ളവരിലേക്കും കൊടുക്കുവാനായിട്ടും അത്